നമ്മുടെ നാട്ടിലാർക്കേലും പാമ്പു കടി കിട്ടിയാൽ നമ്മള് അത് ചികിത്സിക്കും വൈദ്യനും വൈദ്യനെ കൊണ്ട് കാണിക്കും അതിന് അതിൻ്റെ ചികിത്സ തേടുക എന്നാണ് ഇപ്പോൾ പാമ്പ് കടി എന്ന് പറയുമ്പോൾ ഒരാള് മരിച്ച് വരെ കാര്യം ഉണ്ട് പക്ഷേ പാമ്പു കടി നേരിടുക എന്ന് പറയുന്നത് അവരെ ചികിത്സിക്കുക അവർക്ക് തക്കതായിട്ടുള്ള മ പാമ്പ് കടിയേറ്റതിനുള്ള വിഷത്തിനുള്ള എതിരായിട്ടുള്ള ഒരു മരുന്ന് കൊടുത്ത് അവരെ സംരക്ഷിക്കുക